ഇവിടെ ഏറ്റവും അടുത്ത് അമ്മവീട് എന്ന് പറയുന്ന ഒരു വൃദ്ധസദനം ഉണ്ട് നിറവ് എന്ന് പറയുന്ന ഒരു ഭക്ഷണ നൽകുന്ന പാവപ്പെട്ട ഭിക്ഷ യാജിക്കുന്നവർക്ക് ഭക്ഷണം നൽകുന്ന ഒരു ഉണ്ട് ബെസെലിയേഴ്സ് കോളേജ് നടത്തിക്കൊണ്ടു വരുന്നതാണത് പിന്നെ ജീവകാരുണ്യം പ്രവർത്തനങ്ങൾ നടക്കുന്നത് ക്യാൻസർ പേഷ്യൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ജീവകാരുണ്യ പദ്ധതി ഇവിടെ നടക്കുന്നുണ്ട് കോട്ടയം ജില്ലയിൽ തന്നെയാണ് സിം ശിശു സംരക്ഷണ കേന്ദ്രങ്ങളുണ്ട് പിന്നെ ഇവയിൽ മാറ്റമുണ്ടാകേണ്ട പ്രാദേശിക മാറ്റമുണ്ടാക്കുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലെ ഫുഡ് വിതരണമാണ് ഒരുപാട് ജനങ്ങൾക്ക് പൊതിച്ചോറ് കൊടുക്കുന്നുണ്ട് അത് ഏറെ ഉപകാരപ്പെട്ട ഒരു സംഭവം തന്നെയാണ്

സംയോജിത ഗ്രാമീണ വികസന സൊസൈറ്റിയുടെയും ഈ ആരോഗ്യ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ട്രസ്റ്റിൻ്റെയും ആഭിമുഖ്യത്തിലാണ് ഇവയെല്ലാം നടത്തിപ്പോരുന്നത്